പല കുട്ടികൾക്കും ഈ ഒരു കാലത്ത് ജീവിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു കൃഷി എന്താണെന്നോ ഈ അരി എവിടുന്നാണ് ഉണ്ടാവുന്നതെന്നൊന്നും അറിയുന്നില്ല കാരണം നഗരങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾക്കൊന്നും ഇതിനെ കുറിച്ചൊരു വിവരവും ഇല്ല കാരണം അവരൊക്കെ കഴിക്കുന്നു ഇത് എവിടുന്നാണ് കിട്ടുന്നത് എന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല കടകളിൽ നിരത്തി വെച്ചിട്ടുണ്ടാവും പല പല വിധത്തിലുള്ള അരികൾ പച്ചക്കറികൾ ഇത് എവിടുന്നാണ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണത് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ കുട്ടികൾ അറിയുന്നില്ല എങ്കിലും എട്ടാം ക്ലാസിലെ പുസ്തകത്തിലും ഒക്കെ വിത്തുകൾ എങ്ങനെയാണ് മുളയ്ക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഇനത്തിലുള്ള വിത്തുകളാണ് ഉള്ളത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും പുസ്തകത്തിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ മൃഗസംരക്ഷണമാണ് അല്ലെങ്കിൽ ചെറുകിട ബിസിനസിനെ പറ്റിയിട്ട് ഒക്കെ ആണ് എന്നുണ്ടെങ്കിലും അതൊക്കെ ഒരു സമ്പത്ത് ഒണ്ടാക്കാനുള്ള കാര്യം എന്നുള്ള രീതിക്ക് ചെറുകിട ബിസിനസിനെ ഒക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൃഗസംരക്ഷണം പല ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും മൃഗസംരക്ഷണം അറിയാവുന്നതായിരിക്കും കാരണം വീട്ടിൽ പല വളർത്തു മൃഗങ്ങളും ഉള്ള വിടുകളൊക്കെ ഉണ്ടാവും അവർക്കതിനോട് പ്രത്യേക താൽപര്യം ഉണ്ടായിരിക്കും എന്നാൽ നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് പട്ടിക്കുട്ടികളോട് നല്ല താല്പര്യമായിരിക്കും കാരണം അവരുടെ ഒരു കൂട്ട് എന്ന് പറയുന്നത് അമ്മയും അച്ഛനും ജോലിക്ക് പോയാൽ അവരുടെ കളിക്കാൻ കൂടെ കളിക്കാനുള്ള ഒരാളായിരിക്കും ചിലപ്പം എന്താണ് വീട്ടിലുള്ള പട്ടിക്കുട്ടികൾ അല്ലെങ്കിൽ പൂച്ചക്കുട്ടികളൊക്കെ അപ്പോൾ അങ്ങനെ വളർത്തുമൃഗങ്ങളിൽ ഇ കാര്യങ്ങളും നഗരപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആണെന്നുണ്ടെങ്കിലും ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്കാണ് കൂടുതൽ ഇത്തരത്തിലുള്ള അറിവുകൾ കൂടുതലായിട്ട് ഉണ്ടാവുക